അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്നു വച്ചാൽ കാർഷിക വിളകളായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ചു ഒന്നും പറയാൻ എനിക്ക് അറിയില്ല എന്താണെന്ന് വച്ചാൽ കാർഷിക വളരെ ഇപ്പോഴത്തെ ഓ കാലാവസ്ഥയുടെ മാറ്റമായിരിക്കും ചിലപ്പം എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങളും മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയക്കെയാണ് അപ്പം അത് ആ രീതിയിൽ നോക്കുമ്പോൾ കുറേ മാറ്റങ്ങൾ സംഭവിക്കുക കർഷികവിള ഉണ്ടായിട്ട് കാര്യമില്ല ഇനിയിപ്പം നെല്ലായാലും മഴക്കാലമായിക്കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം വന്നു നെല്ല് കളകളെല്ലാം നശച്ചു വിളകളെല്ലാം നശിച്ചു പോവുക ആണ് ആ നശിച്ചു പോകുന്നത് തന്നെ അതിൽ ഇത്തിരിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതും പകുതി നല്ലതും പകുതി ചീത്തയൊക്കെ ആയിരിക്കും അതിന് വില കൊടുക്കാനൊന്നും കർഷകർ ഇത് അനുസരിച്ചു പരാതിക്ക് അനുസരിച്ചു പരാതി പരിഹരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല പിന്നേ ഈ ഒരു കാറ്റടിച്ചാൽ അതുപോലെ വാഴ കൃഷിയാണെങ്കിൽ വാഴകൃഷി ഫുള്ള് ഒടിഞ്ഞു പോവുകയാ ണെങ്കിൽ അതൊന്നും കർഷകർക്ക് വമ്പൻ നഷ്ടമാണ് ഉണ്ടാാവുന്നത് അതും അവർ തിരിച്ചു കിട്ടൽ നേരം അതില്ല കുറേ കാര്യങ്ങൾ ഉണ്ട് അങ്ങനെയൊക്കെ നോക്ക്